ഞാൻ പിന്നെ ഫ്ലിപ്കാർടിൽ നിന്നാണ് ചാർജ്ജർ ഓർഡർ ചെയ്തത് കാരണം നമുക്ക് കുഴപ്പമില്ല അങ്ങനെ വിചാരിച്ചിട്ടാണ് ചാർജ്ജർ ഓർഡർ ചെയ്തത് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ചാർജ്ജർ ഒട്ടും ഒട്ടും ക്വാളിറ്റിയില്ല ചാർജ് കയറുന്നില്ല ഇപ്പോൾ വാങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളു ചാർജ് കയറുന്നില്ല ഫോണിൽ നമ്മൾ ചാർജ് വാങ്ങുന്നത് ചാർജ്ജൊക്കെ കയറാനല്ലേ ഫോണിൽ ചാർജ് കയറുന്നില്ല ഞാൻ പത്ത്മുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചാർജ് കയറുന്നില്ല അപ്പം ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൈസയും പോയി ചാർജർ ഒട്ടും ഒട്ടും ചാർജ് കയറുന്നില്ല